പൂന്തോട്ടത്തെ നിലനിർത്തുവാൻ മെയിൻ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കീടങ്ങളാണ് ആദ്യമേ മുതൽ ഈ ചെടികൾ ഉണ്ടാകുമ്പോൾ ഒത്തുതന്നെ കീടങ്ങളും ക്ഷുദ്രജീവികളും ജന്തുക്കളും ഒക്കെ വരുന്നുണ്ട് വരും അതിനെ അതിജീവിക്കാൻ നമ്മൾ വളരെ ബുദ്ധിമുട്ടാണ് എന്നുവച്ചാൽ കാർഷികമായിട്ടുള്ള കൃഷിക്കാർ മുഖാന്തിരം അതല്ലെങ്കിൽ ഗ്രാമസേവകർ മുഖാന്തിരം ഒക്കെ പണ്ട് കിട്ടിയിരുന്ന അത്രയുള്ള ഇതൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല പക്ഷെ കീടനാശിനി കണ്ടമാനം വരുന്നുണ്ട് അതിപ്പോൾ ജനിറ്റിക് ആയിട്ടുള്ളത് ഉണ്ട് പഴയ രീതിയിലുള്ള ഈ അധികം മനുഷ്യർക്ക് അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് കേടുപറ്റാത്ത രീതിയിലുള്ള ജൈവ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് എങ്കിലും നിലനിർത്താൻ നമ്മൾ പരമാവധി ബുദ്ധിമുട്ടി ചെയ്യുന്നുണ്ട് കൊതുക് കീടങ്ങളെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വിധ ജൈവ കീടനാശിനികളും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വന്ന് നിൽക്കണത് പിന്നെ വളം നല്ല രീതിയിൽ ചെയ്യണം അതിന് സമയത്തിനു ചെയ്യണം അതുപോലെത്തന്നെ അതിൻ്റെ ദൈന്യംദിനം അതിനെ ശുശ്രൂഷിക്കണം അതിൻ്റെ അതിൻ്റെ ഓരോ ദിവസത്തേയും അതിൻ്റെ ചലനങ്ങൾ അതിൻ്റെ മാറ്റങ്ങൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഓരോ പ്രവർത്തനമാണ് നമ്മൾ അതിൽ ചെയ്യണം ചെയ്യേണ്ടത് അതിന് അതു ചെയ്യാൻ മാത്രം മാത്രം ചെയ്യുമ്പോൾ മാത്രം അതൊക്കെ വിജയിക്കുകയുള്ളൂ